ഹലോ യെസ് എനിക്ക് ആ എനിക്ക് മണ്ണാറശാല അമ്പലം വരെ പോകണമായിരുന്നു അതിവിടെ കുറുമ്പനാടെന്ന് പറയുന്ന അസംപ്ഷൻ പള്ളിയുടെ അടുത്താണ് ആ അത് കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി എന്ന് ആ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റ്റ് ആ മണ്ണാറശ്ശാല വരെ എത്ര കിലോമീറ്റർ ഉണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ റേറ്റ് ഒക്കെ കിലോമീറ്ററിന് എത്ര രൂപയാണ് നിങ്ങളുടെ റണ്ണിങ് റേയ്റ്റ് അത് ഇച്ചിരി കൂ അത് ഇരുന്നൂറ് രൂപ ഇച്ചിരി കൂടുതലാണല്ലോ നാട്ടിൽ നടപ്പില്ലാത്ത ചാർജ് ആണല്ലോ അത് മിനിമം ചാർജ്ജ് മുപ്പതാണല്ലോ കിലോമീറ്റർന് ഓട്ടോയ്ക്ക് അല്ലേ ഞാൻ ടാക്സിയല്ല വിളിച്ചത് ഞാൻ ഓട്ടോറിഷയാ വിളിച്ചത് ഓ അങ്ങനെ ഇരുപത് വെച്ചാണോ ഓക്കെ ഓട്ടോറിക്ഷകൾ ഉണ്ടല്ലോ നമ്മുടെ അവിടെ ചങ്ങനാശ്ശേരിയിൽനിന്ന് തിരിഞ്ഞ് കേറിപ്പോകാനും മാവേലിക്കര വഴി കേറിപ്പോവാനും ഒക്കെ ഷോട്ട് കട്ട്കളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അത്രയും കിലോമീറ്റർ ഒന്നും ഓട് ആ ഞാനും വേറെ ഒരാളും കൂടെ ഉണ്ടെ ഞങ്ങൾ രണ്ട് പേരുണ്ട് പോരാൻ കേട്ടോ വിഷയം അല്ലായിരിക്കും അല്ലേ ഞാൻ ഞങ്ങൾ രണ്ട് പേരുള്ളത് കാരണം സാധാ ഓട്ട മതി ഈ പിന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു അമ്പലത്തിൽ അമ്പലത്തിലെ പരിപാടി രാവിലെ ഒരു പത്ത് മണിക്ക് മുമ്പ് ചെല്ലണം അപ്പം ഇവിടുന്ന് എത്ര മണിക്ക് പോകണം അപ്പം നിങ്ങൾ ഇങ്ങോട്ട് വരുമല്ലോ ഞങ്ങൾ വഴിയിൽ ഇറങ്ങി നിൽക്കുകയൊന്നും വേണ്ടല്ലോ ഞാൻ ഞാൻ ലൊക്കേഷൻ ഇട്ട് തരാം അങ്ങനെയാണെങ്കിൽ ഞാൻ ലൊക്കേഷൻ ഇട്ടേക്കാം ഹ് എന്നിട്ട് നാളെ രാവിലെ ഒരു ഏഴേ മുക്കാല് കഴിയുമ്പം റെഡിയായിട്ട് നിൽക്കാം എട്ട് മണിക്ക് നിങ്ങൾ എത്തുമെന്ന് പ്രതീഷിക്കുന്നു ഇങ്ങനെയാണ് പത്ത് മണിക്ക് മുമ്പായിട്ട് ഞങ്ങളെ മണ്ണാറശാല അമ്പലത്തിൽ കൊണ്ടാക്കാം ഓക്കെ താങ്ക് യു